കേരളത്തിൽ അത് അല്ലെങ്കിൽ ഇന്ത്യയിൽ പല പല സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ നാടുകളിലൊക്കെ ഉള്ള ഒരു സമ്പ്രദായമാണ് വളർത്ത മൃഗങ്ങൾ നമ്മളുടെ വീട്ടിലുകളിൽ ഒരുപാട് വീടുകളിൽ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവമാണ് വളർത്ത് മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഇപ്പം പശു ഉണ്ടാകാം എരുമ ഉണ്ടാകാം അത് അല്ലെങ്കിൽ ആട് ഉണ്ടാകാം അതുപോലെ പല പല വസ്തുക്കൾ ഉണ്ടാകാം നമ്മുടെ നാട്ടിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് പശു എന്ന് പറയുന്നത് അത് അല്ലെങ്കിൽ ആട് എന്ന് പറയുന്നത്

ഇതിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ചിലപ്പോൾ നമുക്ക് പുല്ല് കൊടുക്കാൻ പറ്റും അത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന അതിന് കഴിക്കാൻ പറ്റുന്നത് ആകുന്ന പല പല വസ്തുക്കൾ ഉണ്ട് അപ്പം അത് കൊടുത്തിട്ടും അത് അല്ലെങ്കിൽ നമ്മൾ അതിനെ മേയാൻ വിട്ടിട്ടും നമ്മൾ അങ്ങനെ അതിനെ പരിപാലിച്ച് പോരും അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ അതിന് ചെയ്തു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഒരുപാട് വരുമാനങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് ഉദാഹരണത്തിന് അതിൻ്റെ പാൽ അതിൻ്റെ പാൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് ഒരുപാട് മനുഷ്യന്മാരുണ്ട് കാരണം ഈ വളർത്ത് മൃഗങ്ങളായ പശു അത് അല്ലെങ്കിൽ ആട് പോലുള്ള അതിൻ്റെ ഒക്കെ പാൽ വിൽക്കാൻ നമുക്ക് പറ്റുന്നതാണ് അതിൻ്റെ പാൽ വളരെ പോ പോഷകമുള്ളതായത് കൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യക്കാരും അതി അതിന് അനുസരിച്ച് ഒരുപാട് പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പൈസയും അതിന് അനുസരിച്ച് കിട്ടും അപ്പം ഈ ഒരു വസ്തു അത് അല്ലെങ്കിൽ ഈ ഒരു വളർത്ത് മൃഗത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സമ്പാദ്യം അത് അല്ലെങ്കിൽ പണം നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നതാണ് ഇത് ഒരു വഴിയാണ് ഇപ്പം ഞാൻ പറഞ്ഞത് പാൽ വിൽക്കുക എന്നുള്ളത്

എന്ന് പറയുമ്പോൾ ചിലപ്പം നമ്മൾ ഒരു ചെറിയ ഒരു പശുക്കുട്ടിയെ അത് അല്ലെങ്കിൽ ചെറിയൊരു പോത്തിനെയൊക്കെ വാങ്ങിക്കുക ആണെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ എന്നിട്ട് അതിനെ തിരിച്ച് വിൽക്കുന്ന സമയത്ത് ഒരു ഒരുപക്ഷെ പതിനായിരം രൂപയ്ക്ക് വാങ്ങിയ പോത്തിന് ഒരുപക്ഷേ അതിന് കിട്ടാൻ പോകുന്നത് ഒരു ലക്ഷത്തിൻ്റെ മുകളിലേക്ക് ആയിരിക്കും അതിൻ്റെ പൈസ വരുന്നത് നമ്മൾ അതിനെ എങ്ങനെ പരിപാലിച്ചു കൊണ്ടു പോരുന്നു എന്നുള്ളതിനെ കൂടി ഡിപ്പെെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും അതിൻ്റെ വില നമുക്ക് കിട്ടുന്നുണ്ടാവുക അതുപോലെ തന്നെ ഇപ്പം അതിന് ഇപ്പം പശുവാണെങ്കിൽ അതിൻ്റെ പാൽ എത്ര കിട്ടും പിന്നെ അറക്കാനാണെങ്കിൽ അതിൻ്റെ തൂക്കം എത്ര ഉണ്ട് അതൊക്കെ നോക്കിയിട്ടായിരിക്കും അവർ കൊണ്ട് പോകുന്നുണ്ടാവുക അത് അല്ലെങ്കിൽ അതുപോലെയാണ് ഇപ്പം കോഴി താറാവ് അപ്പോൾ ആ വസ്തുക്കളുടെ ഒക്കെ മുട്ട അതും ഇതുപോലെ പാൽ പോലെ ഉള്ളതാണ് കാരണം ഈ നാടൻ മുട്ട എന്ന് പറയുമ്പോൾ അതിനൊക്കെ വളരെ നല്ല വില കിട്ടുന്നതാണ് അപ്പോൾ വളർത്തുമൃഗങ്ങളും നമുക്ക് വരുമാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്